രണ്ട് രണ്ട് പശുവുണ്ട് കോഴിയുണ്ട് അതിനെ ഞങ്ങൾ രാവിലെ പശുവിനെ കുളിപ്പിക്കും തൊഴുത്തെല്ലാം കഴുകി വൃത്തിയാക്കി പശുവിനെ കുളിപ്പിച്ച് പാല് കറന്നുകൊണ്ടുപോയി മിൽമയിൽ കൊടുക്കും അവിടെനിന്ന് തിരിച്ചുവന്നുകഴിഞ്ഞ് പശുവിൻ്റെ കാര്യങ്ങളെല്ലാം പുല്ലെല്ലാംചെത്തിയെല്ലം റെഡിയാക്കും ഇതിനിടയിൽത്തന്നെ ആ കോഴീനെ നമ്മള് തുറന്നുവിടും കോഴിയെ അതിന് തീറ്റിയൊക്കെക്കൊടുത്ത് കോഴിക്ക് തീറ്റയെല്ലാം കൊടുത്ത് അതിന് കോഴിക്കൂടുമെല്ലാം പരിസരമെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം നമ്മള്ക്ക് തൊട്ടയൽവക്കത്ത് വീടുകളൊക്കെയുണ്ട് ആ വീട്ടിലൊക്കെ സ്മെല്ലൊന്നും ചെല്ലാത്തരീതിയിൽ നമ്മളതിനെ തവിടിട്ട് ഇട്ട് നമ്മുടെ ഒരു കോഴി കോഴിയുടെ സ്മെല്ല് വരാതിരിക്കാനായിട്ട് മുഴുവൻ ഭാഗത്തും നമ്മള് തവിടൊക്കെയിട്ടുകൊണ്ട് നമ്മള് അതുങ്ങൾക്ക് മണം പുറത്ത് മറ്റുള്ളവർക്ക് ശല്യമാകാത്ത രീതിയിലത് നമ്മൾ ചെയ്യും പിന്നെ പശുവിൻ്റെ അത് ആ സമയംതന്നെ പശുവിൻ്റെ കാര്യങ്ങളും നോക്കും പശുവിന് ഇതുപോലെ സമയത്തതിന് പിണ്ണാക്കും കഞ്ഞിവെള്ളവും എല്ലാം കൊടുക്കും രാവിലെ ഇത്രയും രാവിലെ നാല് മണിയാവുമ്പോള് എഴുന്നേറ്റുകഴിഞ്ഞാല് പശുവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുവരുമ്പോള് ഒരു ഒന്നൊന്നര മണിക്കൂറായി അഞ്ചരയാകുമ്പോള് എല്ലാം പശുവിനെയെല്ലാം കറന്ന് രാവിലെ മിൽമായില് പോയി പാല് കൊടുത്തേച്ച് വരുമ്പോള് കോഴിയുടെ കാര്യങ്ങളും നോക്കും കോഴി കോഴിയെ ഇതുപോലെത്തന്നെ നമ്മള് ഇതെല്ലാംചെയ്ത് തീറ്റിയെല്ലാം കൊടുത്ത് മുട്ടയിടുന്ന കോഴികളാണ് മുട്ടയെടുക്കും മുട്ടയെടുത്തിട്ട് കടയിൽ കൊണ്ട്കൊടുക്കും ഒരു മുട്ടയ്ക്ക് പത്തു രൂപ വച്ചുണ്ട് നമുക്ക് ലാഭം ഉള്ള കച്ചവടം ആണ് അത് എന്തുകൊണ്ടും നല്ലതാണ് പാലിനും വിലയുണ്ട് മുട്ടയ്ക്കും വിലയുണ്ട് പാലു കൊടുത്താലും നല്ല പൈസകിട്ടും മുട്ട കൊടുത്താലും പൈസ കിട്ടും നല്ല രീതിയിൽ പോകുന്നു രണ്ട് ബിസിനസ്സും കോഴിയെ നമുക്ക് വില്ക്കണമെങ്കിൽ വില്ക്കാനുള്ള കോഴികളുമുണ്ട് അതിനെ തൂക്കിവിറ്റാലും പൈസയാണ് ആ കോഴി ഇറച്ചിക്കോഴിയും കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ട മുട്ടയിടുന്നത് വീടുകളിൽ കൊടുക്കും വീടുകളിലും കൊടുക്കും മുട്ട മാർക്കറ്റിലും കൊണ്ടുക്കൊടുക്കും അത്യാവശ്യം മാർക്കറ്റിൽ കൊണ്ടുകൊടുക്കേണ്ട എല്ലാരും വീടുകളിൽ വരുന്നവരുണ്ട് പിന്നെ പറയുന്നവരുണ്ട് പറയുന്നവർക്ക് കൊടുക്കും പാലിനും വീട്ടിൽ ആൾക്കാർ വരുന്നുണ്ട് പാലും കൊടുക്കും പാലും പാലും മുട്ടയും ഒരുകൂട്ടരുതന്നെ വാങ്ങിച്ചോണ്ട്പോകുന്നവരുണ്ട് രണ്ടും ഒരുപോലെതന്നെ കൊണ്ടുപോകും പാല് വാങ്ങിക്കുന്നവര് മുട്ടയും വാങ്ങിക്കും മുട്ട വാങ്ങിക്കുന്നവര് പാലും വാങ്ങിക്കും അങ്ങനെ വീട്ടിലും നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാം പിന്നെ കടകളിലും കൊണ്ടുകൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ലാഭമുള്ള കച്ചവടം നല്ല ഒരു പരിപാടിയാണ് പക്ഷെ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മളുടെ പരിസരത്തുള്ളവർക്കും നമുക്ക് അവർക്കൊരു സ്മെൽ വരാനോ അങ്ങനൊരു ഒന്നിനും നമ്മളിടയാക്കത്തില്ല എല്ലാം നമ്മളുതന്നെയങ്ങ് ചെയ്യും എല്ലാം മൊത്തം ഫുൾ ടൈം ഇതുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇത് ഇത് നമ്മളുടെ നമ്മടെയൊരു നിത്യ വരുമാനമാണ് നിത്യ തൊഴിലാണ് നമുക്ക് നന്നായിട്ട് നോക്കി നന്നായിട്ട് പോകുന്നു കാര്യങ്ങളെല്ലാം പിന്ന കോഴിയും ആടും എല്ലാം നമുക്ക് ഇതുവരെയുള്ള ഈ സമയത്ത് നമുക്ക് ഗുണപ്രദമേ ആയിട്ടുള്ളു ഞങ്ങളുടെ വരുമാന മാർഗംകൂടിയാണത്